മൃഗങ്ങളെ വളർത്തുക ആണെങ്കിൽ ഉദാഹരണമായിട്ട് പശു ആട് എരുമ അതുപോലെയുള്ള മൃഗങ്ങളെ വളർത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൃഷിയെ ഫലപുഷ്ടപ്പെടുത്താൻ ആയിട്ട് സാ സാധിക്കും ചാണകവും മൂത്രവും ഒക്കെ വളം വളങ്ങളാണല്ലോ ആ വളങ്ങൾ ഇട്ട് കപ്പയൊക്കെയാണെങ്കിൽ കൃഷി ചെയ്ത് നമുക്ക് ഉപജീവന മാർഗ്ഗം നയിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞങ്ങൾ ഇവിടങ്ങളിലൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ ഞങ്ങൾ വാമ്പാടിക്കാരാണ് വാമ്പാടി അടുത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ക പശുനെ വളർത്തി ഉപജീവന മാർഗ്ഗം നയിക്കുന്നവരുണ്ട് അവർ പശുവിനെ വളർത്തി പാൽ കൊണ്ട് മൃഗാശുപത്രി മിൽമായിൽ കൊടുത്ത് കാശും മേടിച്ച് ഉപജീവനം നയിക്കുന്നവരും ഉണ്ട് പിന്നെ മൃഗാശുപത്രിയിൽ പോയാൽ പശു പശുവിനുള്ള സഹാ പാഹാ ഭക്ഷണങ്ങളും ഇപ്പം പൊടികളും കന്നുകാലി തീറ്റകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മൃഗാശുപത്രിയിൽ നിന്നും കിട്ടും പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇതിനെ വാങ്ങിക്കാനും വളർത്തുവാനുമുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഉണ്ട് പക്ഷേ അത് മൃഗാശുപത്രിയിൽ നിന്നും സബ്സിഡിയായി ഇനത്തിലോ എങ്ങനെയെങ്കിലുമൊക്കെ സഹായങ്ങൾ ലഭിക്കുമായിരുന്നെങ്കിൽ അവരും കൂടി ഇതിനെ വളർത്തി അവരുടെ ജീവിതമാർഗ്ഗം സമ്പൂർണ്ണമാക്കി തീർക്കുമായിരുന്നു